രണ്ടു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുനൂറ്റി നാപ്പത്തിയൊൻപത് എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് ഒൻപത് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന്